ഹലോ ആ ആണല്ലോ അതെ അതെ അതെ ആ എന്നാ ആ മീൻകറി ഉണ്ട് ഉണ്ട് ഉണ്ട് ത് മീൻ ഇപ്പം നമുക്ക് ഇവിടെ വറ്റ കറി വെച്ചതുണ്ട് കരിമീനുണ്ട് ആ പിന്നെ ഫ്രഷ് ആയ മീൻ നമ്മൽ ഇവിടെ ഫ്രഷ് സാധനം മാത്രമേ കൊടുക്കുള്ളൂ ആ പൊള്ളി മീൻ പൊള്ളിച്ചത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് കരിമീൻ പൊള്ളിച്ചതുണ്ട് ഇത് ഈ വറ്റക്കറി തന്നെ നിങ്ങൾക്ക് വറ്റ തന്നെ പൊള്ളിച്ച് തരും ഏ ഏത് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി പറയുന്ന ഐറ്റം അന്നേരം നമ്മൾ ഫ്രഷ് ആയിട്ട് പൊള്ളിച്ച് കൊടുക്കുവാണ് എൻ ആ അതേന്ന് അത് നല്ല ശുദ്ധമായ നമ്മൾ വാഴയിലയ്ക്ക് അകത്ത് തന്നെ പൊള്ളിച്ച് നമ്മുടെ കുമരകം കരിമീനാണ് അത് ഒന്ന് കൊണ്ടും പേടിക്കേണ്ട ഫ്രഷ് സാധനം ആണ് അല്ല മറ്റേ ആന്ധ്ര ആന്ധ്രാ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് അതെ അതെ ആ നല്ല മസാല മസാല ഒക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് തരും പിന്നെ കൊഞ്ച് ഫ്രൈ ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല വേ വേമ്പനാട്ട് കായലിലെ ഫ്രഷ് സാധനം ആണ് കൊണ്ടുവരുന്നത് അതിവിടെ വെച്ച് നല്ല ഫ്രഷ് ആയിട്ട് കഴുകി നല്ല ഭംഗി ആക്കിയാണ് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ വന്ന് കണ്ട് നോക്കിക്കോ സാധനം ഇവിടെ ഇരിപ്പുണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി ആ

ആ ആ ആ ആ ആ കരിമീനാണോ വേണ്ടത് ആ ഹാ ഹാ ഇവിടെ ഫ്രഷേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല രണ്ട് കൊഞ്ച് ഫ്രൈ തുകയോ അ അത് ആ അത് നമ്മൾ ഞാനിപ്പം കൂട്ടിയിട്ട് അവന്മാരോട് ചോദിച്ചിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ഇട്ടേക്കാമേ ആ ആ അങ്ങോട്ട് അയച്ചുതരാം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് പോയാൽ പിന്നെ കോട്ടയത്ത് എപ്പം വന്നാലും നിങ്ങൾ ഇവിടെയേ വരുള്ളൂ അതാണ് ഞങ്ങളെ ഇടപാട് ആ നമ്മൾ അവിടെ കോട്ടയത്ത് മേളയ്ക്കൊക്കെ നമ്മൾ പോയി ഭക്ഷണം കൊടുക്കുന്നതല്ലേ ആ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ